ആ ഓക്കെ ഓക്കെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പോഴേക്ക് നമുക്ക് ആധാറ് വേണം ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം ഒരു ഫോട്ടോ വേണം ഓക്കെ ഒപ്പം നിലവിലിപ്പം ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലല്ലേ ആ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുവാ ഓഫീസിൽ ആശുപത്രിയിലെ ആശുപത്രിയിൽ ബന്ധപ്പെടുക ആശുപത്രിൽ എന്തെങ്കിലും രേഖ കാണും കുഞ്ഞ് ജനിച്ചത് ഇന്ന സമയത്ത് ഇന്ന സമയത്താണെന്നു പറഞ്ഞ് അപ്പം നിങ്ങൾ പഞ്ചായത്തിൽ വിളിച്ച് പറഞ്ഞ് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പം പഞ്ചായത്തിൽ ചെന്ന് ജനന സർട്ടിഫിക്കറ്റിന് പഞ്ചായത്തിലൊരു അപേക്ഷ കൊടുത്താൽമതി അപ്പം അവർ അതിൻ്റെ ഡീറ്റെയിൽ എടുത്തുതരും പിന്നെ അതേപടി അതേപടി ഈ ജനിച്ചത് അന്ന് എവിടെ ഏത് സമയത്ത് അന്ന് ആശുപത്രിക്കാരുടെ അടുത്തുനിന്നൊരു ലെറ്ററും കൂടി കൊടുത്താൽമതി ബാക്കി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽമതി കേട്ടോ